ഞങ്ങളുടെ ഗ്രാമീണ സമൂഹത്തിലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ വ്യത്യസ്തതരം നൃത്തരൂപങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ട് കാരണം എന്നു വച്ചു കഴിഞ്ഞാൽ അവർക്ക് അതായത് ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഗാനമേള എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ ആദിവാസികൾ നല്ല അടിപൊളി ആയിട്ട് അവർ നല്ല എന്താ പറയുക ഒരു ആദിവാസി നൃത്തം എന്നൊക്കെ പറയില്ലേ അതേപോലെ കളിക്കുന്നുണ്ട് പിന്നെ നല്ല രീതിയിലുള്ള കളികളും കാര്യങ്ങളുമൊക്കെ നടത്തുന്നുണ്ട് നൃത്ത രൂപങ്ങൾ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള നൃത്തരൂപങ്ങൾ അവർ ചെയ്യുന്നുണ്ട് സിനിമാറ്റിക്ക് ഡാൻസ് ഫോക്ക് ഡാൻസ് അങ്ങനെ പലതരം ഡാൻസുകളുണ്ട് കൂടുതലും ഈ ചെറുപ്പകാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാനമേളയ്ക്ക് തുള്ളുന്ന അങ്ങനത്തെ ടൈപ്പ് ഡാൻസുകളാണ് താല്പര്യം ചെറുപ്പകാർക്ക് കൂടുതലായിട്ടും ഏർപ്പെടുന്നതും അങ്ങനത്തെ രീതിയിലുള്ള ഡാൻസുകളിലാണ് ഈ ഗാനമേളയ്ക്ക് കളിക്കുന്ന ഡാൻസുകൾ അങ്ങനത്തെ പലതരം ഡാൻസ് കളികളിൽ അപ്പോൾ അവർക്ക് കൂടുതലും ഇഷ്ടം ഇങ്ങനത്തെ ഡാൻസുകളാണ്